സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിനെയും വളർച്ചയ്ക്കൊപ്പം മലയാള ഭാഷയുടെ ഉപയോഗത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇപ്പം സാങ്കേതികവിദ്യ വികസിച്ചതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും ഒത്തിരി പുരോഗതിയിൽ വന്നിരിക്കുകയാണ് അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് അസാധാരണമാണ് ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം വളരെ വലുതാണ് അത് ഗുണങ്ങളോടൊപ്പം ദോഷവും ഉണ്ടാകാറുണ്ട് സാധാരണ പണ്ടുള്ള പണ്ടത്തെ അതായത് പ്രായമുള്ള മാതാപിതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും ഒരറിവും ഇല്ലായിരുന്നു ഇപ്പം കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പൊഴൊരു അൻപത് വയസ്സുള്ളൊരു വ്യക്തിക്ക് അറിയാവുന്നതിൽ കൂടുതൽ കൊച്ചു പിള്ളാർക്ക് വരെ ഇൻ്റർനെറ്റ് കൈകാര്യം ചെയ്യാനറിയാം എന്നുള്ളതാണ് അതിനകത്തേറ്റവും വലിയൊരിത് അതുപോലെ മലയാളഭാഷ ഉപയോഗത്തിലും ഇപ്പം നമ്മൾ വാട്സപ്പാണെങ്കിലും ഒക്കെ മലയാളഭാഷ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസുണ്ട് അങ്ങനെ മലയാളം ഉപയോഗിക്കാൻ അല്ലേ എഴുതാനൊക്കെ എല്ലാവരും അതിൽനിന്ന് ഉപകാരം ഉപകരിക്കുന്നുണ്ട് മലയാള ഭാഷയെ എല്ലാ മനുഷ്യർക്കും ഗുണകരമായിട്ട് വരുന്നുണ്ട് സാങ്കേതികവിദ്യയും ഇൻ്റർനെറ്റുമൊക്കെ ഒത്തിരിയൊത്തിരി അധികം വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയാളഭാഷ മറ്റു ഇംഗ്ലീഷ് ഓരോത്തരും അതിലോട്ട് ഉപയോഗം എടുക്കുന്നുണ്ട് സാധാരണക്കാർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിലൂടെയാണ് ഇപ്പോഴത്തെ സാങ്കേതികവിദ്യകളെല്ലാം തന്നെ ഏതു കാര്യവും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുവാനും പിന്നേ ഫോണും ഇൻ്റർനെറ്റുമൊക്കെ വന്നിട്ട് അധികം കാലമായില്ലെങ്കിൽപ്പോലും ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുമ്പം തന്നെ കുട്ടികളുൾപ്പെടെ എല്ലാവരും ആ അത് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് ചെയ്യാനുമെല്ലാം പരിശ്രമിക്കാറുണ്ട് അങ്ങനെ സാങ്കേതികവിദ്യയും സാങ്കേതികവിദ്യ ഇൻ്റർനെറ്റുമൊക്കെ വളരെയധികം വളരെയധികം വികസിക്കുന്നുണ്ട് മലയാളഭാഷയും അതുപോലെതന്നെ പകുതിപേർ മലയാളഭാഷയുടെ ഉപയോഗത്തിൽ താല്പര്യപ്പെടുന്നു എന്നാൽ കൂടുതൽ പേർ ഇംഗ്ലീഷ് ഭാഷയുടെ താൽപ്പര്യത്തിൽ പോവുകയാണ് മലയാളഭാഷ ഉപയോഗിക്കാതെ ഇംഗ്ലീഷിലേക്ക് പോകുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് പിന്നെ ഈ സാങ്കേതികവിദ്യകൾ വളർന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സാങ്കേതികവിദ്യകൾ വളർന്നിരിക്കുകയാണ് നമ്മൾക്ക് പണ്ടൊക്കെയാണെങ്കിലൊരു സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കണമെങ്കിൽ എത്രനേരം താമസമായിരുന്നു ഇപ്പോൾ ഒറ്റ സെക്കൻറ്റ് കൊണ്ട് തന്നെ അത് ആര് ആരിലൂടെ എപ്പോൾ എവിടെ വേണമെങ്കിലും പറയാനുള്ള സംവിധാനങ്ങൾ വളർന്നിരിക്കുകയാണ് സാങ്കേതികവിദ്യ അത്രയധികം പുരോഗമനമുണ്ടായിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഫോണിൽത്തന്നെ ഇൻ്റർനെറ്റിലൊരു കാര്യം മെസ്സേജിട്ടാലൊടനെ അവരത് കണ്ടോ അല്ലെങ്കിൽ എന്താ ആ ഒരു കാര്യങ്ങളെല്ലാം റിപ്ലൈയൊക്ക ഒറ്റ മിനിറ്റ് കൊണ്ടുതന്നെ അതെല്ലാം വരാൻമാത്രം ഉള്ള സാങ്കേതികവിദ്യ വലിയ ഒരു പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് പണ്ടത്തേക്കാലത്തെ അപേക്ഷിച്ച് പണ്ട് നമ്മൾ ഒരു നാട്ടിൽനിന്ന് ഒരു നാട്ടിലേക്ക് മെസ്സേജ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലെറ്ററെഴുതി അത് പോസ്റ്റ് ചെയ്തൊക്കെ കൊടുത്ത് ഒരാഴ്ച്ച കഴിഞ്ഞ് അവിടെച്ചെന്ന് അവിടെയൊരു കാര്യം നടന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരാഴ്ച്ച കഴിയും അത് അറിയുമ്പോഴത്തേക്കും ഇതെന്നുവെച്ചാൽ ഒറ്റ സെക്കൻറ്റ് കൊണ്ടുതന്നെ അതവിടെടെയറിയാനും അവർ തരുന്ന റിപ്ലൈ നമ്മളറിയാനുമൊക്കെ അത്രയധികം പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായ സാങ്കേതികവിദ്യ വിദ്യയെന്ന് പറയുന്നത് അത് അതുപോലെ ആ ഉപയോഗത്തിലൂടെ മലയാളഭാഷയുടെ ഉപയോഗത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഒണ്ടായിട്ടുണ്ട് അത് നല്ലതും ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട് മലയാളം നമ്മുടെ മാതൃഭാഷയാണ് ഒരിക്കലും മാതൃഭാഷ നമ്മൾ മറക്കാനാവത്തില്ല എങ്കിൽപ്പോലും ഇംഗ്ലിഷിലോട്ടാണ് കൂടുതലാൽ ആൾക്കാർ ഇംഗ്ലീഷ് പറയുന്നതാണ് ഏറ്റവും വലിയതെന്നുള്ള ചിന്തയിൽ മലയാളം ഭാഷ അറിയാമെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ മലയാളത്തിൽമാത്രം സംസാരിച്ച് ഞങ്ങളുടെ മാതൃഭാഷ മലയാളത്തിൽ എന്നുള്ള തനിമയാണെന്നുള്ള രീതിയിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുമുണ്ട് അപ്പോൾ രണ്ട് തരത്തിലും ചിന്തിക്കുന്ന മലയാളികൾ ആണ് ഉള്ളത് അങ്ങനെ സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിന്റേയും വളർച്ചയ്ക്കൊപ്പം നമ്മുടെ മലയാളഭാഷയിലും ഒരുപാടൊരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ടെന്നതാണ് ഇതിൽനിന്നും അനുമാനിക്കുവാനും മലയാളഭാഷയിലൂടെ അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ നമ്മുടെ കേരളം വളരണം അല്ല ഇപ്പോൾത്തന്നെ ഇംഗ്ലീഷ് ആണ് പലരും കൈമുതലായി വെയ്ക്കുന്നത് കുറച്ചുവർഷങ്ങൾ കൂടെ കഴിയുമ്പം മലയാളഭാഷ എല്ലാവർക്കും വേണ്ടായെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിൽക്കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മലയാളഭാഷ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഉള്ള പിന്നെ ഓപ്ഷൻസൊക്കെയുള്ളത് വളരെ ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു